ആദ്യമൊക്കെ ബസ്സിലായിരുന്നു കല്ല്യാണം കഴിയാത്ത മുന്നെയൊക്കെ പോയിരുന്നത് പിന്നെ കല്ല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു ദിവസമൊക്കെ ബസ്സിൽ തന്നെയായിരുന്നു പോയിരുന്നത് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു ബൈക്ക് സെക്കൻ്റ് ഹാൻ്റ് ബൈക്ക് മേടിച്ചു അപ്പോൾ അതിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായി ഞങ്ങൾ രണ്ടാളും പോയപ്പോൾ പിന്നെ പോയി കുറച്ച് അതു അവിടെ പോയി മടങ്ങി വരുമ്പോൾ ഭർത്താവിൻ്റെ ബൈക്ക് രണ്ടാളും കൂടി ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഒരു ഇടവഴിയുണ്ട് ആ ഇടവഴിയിൽ മറിഞ്ഞ് രണ്ടാളും വീണു അങ്ങനെ ഒന്നും പറ്റിയൊന്നും ഇല്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു പിന്നെ ദൂരെ യാത്രയൊക്കെ പോവുമ്പോൾ ബസ്സിൽ പോവും ബൈക്ക് കൊണ്ടുപോവാറില്ല പിന്നെ ട്രെയിനിൽ പോവാറുണ്ട് ട്രെയിനിൽ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നു അച്ഛനും ഞാനും പിന്നെ അമ്മയും യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ പിന്നെ ജനലിൻ്റെ അടുത്തായിരുന്നു ഇരുന്നത് അപ്പോൾ ജനലിൻ്റെ അടുത്ത് കയ്യ് ജനലിന്മേൽ ഇങ്ങനെ കയറ്റി വച്ചപ്പം പെട്ടെന്ന് ഷട്ടറ് അച്ഛൻ്റെ കയ്യിന്മേലേക്ക് വീണ് കൈ നല്ല വേദന ഉണ്ടായിരുന്നു പെട്ടെന്ന് കൈ എടുക്കാനും പറ്റിയില്ല പിന്നെ ഷട്ടറ് എല്ലാവരും കൂടി പിടിച്ചു പൊന്തിച്ച് മാറ്റി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു പിന്നെ